മലയാളം കേരളത്തിൻ്റെ മാതൃ ഭാഷയാണ് മലയാള ഭാഷയുടെ ഉത്ഭവം പ്രാചീന തമിഴിൽ നിന്നാണന്നാണ് വിശ്വസിക്കുന്നത് അതിനാൽ തന്നെ വളരെ കഠിനമായ ഒരു ഭാഷയാണ് മലയാളം ആർക്കും വേഗത്തിൽ ഈ ഭാഷ പഠിച്ചെടുക്കാൻ സാധിക്കില്ല വളരെ ബുദ്ധിമുട്ടുള്ളൊരു ഭാഷയാണ് മലയാളം മറ്റ് ഭാഷകളേക്കാളും സവിശേഷത ഉള്ള ഒരു ഭാഷയാണ് കൂടാതെ ഈ ഭാഷ വൈവിധ്യ പൂർണ്ണവുമാണ് വളരെ പ്രത്യേകതയുള്ളതുമാണ് മലയാളം സംസാരിക്കാൻ അറിയാമെങ്കിൽ വേറെ ഏതു ഭാഷയും അനായാസം സംസാരിക്കാൻ സാധിക്കും എന്നാണ് പറയപ്പെടുന്നത് മലയാള ഭാഷ കേരളത്തിൻ്റെ പൈതൃകത്തെയും സംസ്കാരത്തെയും സൂചിപ്പിക്കുന്നു കേരളത്തിൽ പതിനാല് ജില്ലകളാണ് ഉള്ളത് ഓരോ ജില്ലയിലെ മലയാള ഭാഷയുടെ ശൈലി വ്യത്യസ്തമാണ് വാക്കുകളുടെ അർഥത്തിൽ തന്നെ വ്യത്യാസം വരാറുണ്ട് ഓരോ ജില്ലയിലും അതുകൊണ്ടു തന്നെ വൈവിധ്യമായ ഒരു ഭാഷ കൂടിയാണ് മലയാളം മറ്റു ഭാഷകളിലെ പോലെ മലയാളത്തിൽ ലിങ്കഭേദമില്ല കേരളത്തിലെ ജനങ്ങൾ മലയാളം സംസാരിക്കുന്നത് കൊണ്ട് തന്നെ അവരെ നമ്മൾ മലയാളികൾ എന്നാണ് വിശേഷിപ്പിക്കുന്നത് ആധുനിക മലയാളത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് തുഞ്ചത്തെഴുത്തച്ഛനാണ് ആധുനിക മലയാളത്തിൽ ഇദ്ദേഹത്തിൻ്റെ സംഭാവന വളരെ പ്രധാനപ്പെട്ടതാണ് കേരളത്തോട് ചേർന്ന് കിടക്കുന്ന സമീപ പ്രദേശങ്ങളിലും മലയാളം സംസാരിക്കാറുണ്ട് പിന്നെ ലക്ഷദീപ് പോലെയുള്ള സ്ഥലങ്ങളിലും മലയാളമാണ് സംസാരിക്കാറുള്ളത് മലയാള ഭാഷയിൽ തമിഴിൻ്റെ സ്വാധീനം ഏറെ ഇണ്ട് കാരണം മലയാളം ഉത്ഭവിച്ചത് തമിഴിൽ നിന്നായതു കൊണ്ടാണ് മലയാളത്തിൻ്റെ അക്ഷരമാലകൾ സവിശേഷതയുള്ളതാണ് വാക്കുകളുടെ ഉച്ഛാരണം അടിസ്ഥാനമാക്കിയാണ് ക്രമീകരിച്ചരിക്കുന്നത് ഇതിൽ ത്തന്നെ സ്വരാക്ഷരങ്ങളും വ്യഞ്ജാനാക്ഷരങ്ങളും ഉണ്ട് പിന്നെ ഇതിൽ കൂട്ടാവുന്നതാണ് ചില്ലക്ഷരങ്ങൾ എന്ന് വിളിക്കുന്ന ഒരു ഇൻ ഇൽ ഇംഗ്ളീഷ് ഭാഷയെ പോലെ അല്ല മലയാളം ഭാഷ എങ്ങ്എയാണോ എഴുതുന്നത് അതുപോലെ തന്നെ നമ്മൾക്ക് വായിക്കാൻ സാധിക്കും മലയാള ഭാഷയുടെ ഭംഗി അതിൻ്റെ സാഹിത്യത്തിൽ പ്രതിഫലിക്കുന്നുണ്ട് കവികൾ മലയാള ഭാഷയെ വളരെ മനോഹരമായാണ് ഉപയോഗിക്കുന്നത് മലയാള ഭാഷയെ ലോകത്തിന് മുന്നിൽ എത്തിക്കാൻ സാഹിത്യകാരന്മാർ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് മലയാളത്തിൽ പ്രാവീണ്യമുള്ള ഒരാൾക്ക് കവിതയും കഥയും എഴുതാൻ സാധിക്കുകയുള്ളു